ഫോട്ടോഗ്രാഫി ഒരു തൊഴിലായെടുക്കുന്നത് വളരെ നല്ലതാണെന്നു തന്നെ ഞാന് പറയാ വളരെ ആർട്ടിസ്റ്റിക്കായിട്ട് അത് കലാപാരമായിട്ടുള്ള ഒരു തൊഴിലാണത് എല്ലാവർക്കും ഫോട്ടോഗ്രാഫി സാധ്യമല്ല അതായത് വളരെ കലാപരമായ ഫോട്ടോഗ്രാഫികളെടുക്കുക എന്ന് പറയുന്നത് അതൊരു സ്കില്ലാണ് പിന്നെ ഈ ഈ അടുത്തകാലത്ത് വിവാഹ ഫോട്ടോഗ്രാഫികളെ കുറിച്ച് ഉള്ള ഒരഭിപ്രായം ഓക്കെ വിവാഹമെന്ന് പറയുന്നെ ഒരാളുടെ ജീവിതത്തില് വളരെ നിർണായകമായ ഒരു ഒരു സംഭവമാണ് അതിനെ എത്ര ഭംഗിയായിട്ടും എത്ര കലാപരമായിട്ടും എത്ര ഫ്രണ്ട്ലി ആയിട്ടും ഒപ്പിയെടുക്കാമെന്നുള്ളതാണ് ആ പോലു ഫോട്ടോഗ്രാഫി ഇ ആ ഒരു ദിവസത്തെ ഫോട്ടോഗ്രാഫി കൊണ്ട് ആഗ്രഹിക്കുന്നത് അതാണല്ലോ ഒരു വധുവും വരനും അല്ലെങ്കില് അവരുടെ ബൻ അടുത്ത ബന്ധുക്കളും പ്രതീക്ഷിക്കുന്നത് പക്ഷേ ചിലപ്പോഴെങ്കിലും അപ്പോള് നടക്കുന്ന വിവാഹ ആഘോഷങ്ങളുടെ ഫോട്ടോഗ്രാഫിയാണെടുക്കേണ്ടത് പക്ഷേ ഇ ഇപ്പോഴത്തെ ഒരു വിവാഹ ആഘോഷം ഫോട്ടോഗ്രാഫി അത് തൊഴിലാക്കിയവര് പിന്നെ കൂടുതലും ഫോട്ടോഗ്രാഫിക്ക് കൂടുതല് പ്രാധാന്യം നൽകുകയും അല്ലായെങ്കില് അന്നത്തെ ദിവസത്തെ ഫോട്ടോഗ്രാഫേഴ്സ് തൊഴില് ചെയ്യുന്നവരാ ദിവസത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികളായിട്ട് മാറുന്ന ഒരു വ വിഹനമായൊരു കാഴ്ചപ്പാട് വ സംഭവം ഇപ്പോൾ കാണുന്നുണ്ട് ചടങ്ങുകളുടെ പ്രാധാന്യം കുറയുന്നു അല്ലെങ്കില് പ്രത്യേകിച്ച് റിലീജിയസ് സംബന്ധമായ സി വളരെ നിർണായകമായ വിവാഹമുഹൂർത്തങ്ങളുടെ പ്രാധാന്യവും അല്ലെങ്കില് അതിൻ്റെ പവിത്രതയും കുറച്ച് കാണിക്കുകയും അതെല്ലാം ഒപ്പിയെടുക്കാനായിട്ട് നടത്തുന്നൊരു തത്രപ്പാടുണ്ടല്ലോ ഫോട്ടോഗ്രഫര്മാര് അപ്പോള് അവർക്ക് വേണ്ടിയിട്ട് നമ്മള് ആ കർമ്മങ്ങള് ചെയ്യുന്ന ഒരു രീതിയിലേക്കൊക്കെ വരുന്നത് കാണുന്നത് ഈ തൊഴില് വികലമായി പോകുന്നു എന്ന് തന്നെ വേണം കാണാനായിട്ട് എനിക്ക് തോന്നുന്നില്ല അതെത്രകാലം മുമ്പോട്ട് അങ്ങനെ പോകും അടുത്തൊരു ജനറേഷന് ഇങ്ങനത്തെ ഫോട്ടോഗ്രാഫി വേണ്ട എന്ന്പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും പക്ഷെ ഫോട്ടോഗ്രാഫര്മാര് എന്തുവാണ് നടക്കുന്ന മുഹൂർത്തങ്ങള് നടക്കുന്ന നല്ല അല്ലേ ഓർമിക്കപ്പെടേണ്ട മുഹൂർത്തങ്ങളും ചടങ്ങുകളും ഒപ്പിയെടുക്കുന്നവര് അത് വളരെ കലാപരമായിട്ടും വളരെ ഭംഗിയായിട്ടും വല്ല കീയായിട്ടും അറ്റന്റീവായിട്ടും അത് ഒപ്പിയെടുക്കുകയും ഫോട്ടോ ആയിട്ട് വരികയും ചെയ്യുന്നതാണ് അഭികാമ്യം എന്നാണ് എൻ്റെ ഒരഭിപ്രായം എന്തുവായാലും ഫോട്ടോഗ്രാഫി ഒരു വളരെ ആർട്ടിസ്റ്റിക്കായിട്ടുള്ള ഒരു തൊഴിലാണ് എല്ലാവർക്കും ചെയ്യാവുന്നതല്ല അതിന് പ്രത്യേകമായ തനതായ കഴിവും പിന്നേ അതിനൊരു പ്രത്യേക ഇൻട്രെസ്റ്റും കൂടെ വേണമല്ലോ